ഹലോ ഇത് ചന്ദ്ര ഡ്രൈവിങ് സ്കൂളാ ആ ഞാൻ കൂത്തുപറമ്പ് നിന്ന് വിളിക്കുന്നേനു ആ ഡ്രൈവിങ് പഠിക്കാൻ വരാണ്ടീട്ട് രണ്ടും വേണം രണ്ടും വേണം കാറും ബൈക്കും വേണം പതിമൂവായിരത്തി അഞ്ഞൂറ് ആവാ മ് അത് പി എങ്ങനെയാണ് ഫസ്റ്റ് അടക്കണോ അല്ലെങ്കില് നമ്മള് പിന്നെ പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തവണ ആയിട്ട് അടച്ചാൽ മതിയോ ആ ആ മൂവായിരം ഫസ്റ്റ് തന്നേന് ശേഷം ശേഷം പിന്നെ രണ്ടു മൂന്ന് പ്രവശ്യായിട്ട് അടച്ചാൽ മതിലേ ആ അപ്പോൾ പിന്നെ ആ ടൈമ് ഏ ഏത് സമയത്താണ് വരണ്ടത് ആ അങ്ങനെ ആ അല്ല ആടെ സ്ത്രീകൾ എപ്പോൾ രാവിലെ എപ്പം ഉണ്ടാവുക പഠിപ്പിക്കുന്നവര് അതേല്ലേ എന്നാൽ മ് എന്നാൽ രാവിലെ വരുന്ന വരാമെന്ന് തോന്നുന്നു വരുന്നയാ നല്ല ഞാൻ രാവിലെ വരാം അപ്പോൾ രേഖകൾ എല്ലാം എടുത്തിട്ട് നാളെ രാവിലെ ഒരു ഏഴര ആകുമ്പോൾ വരാല്ലേ ആ രാവിലെ ഏഴര ആകുമ്പോൾ അവിടെ തുറക്കുവോ ആ എന്നാൽ ഒരു ഏഴര എട്ട് മണിയാവുമ്പോൾ വരാം